അതെ പൈപ്പിന് ലീക്ക് ഉണ്ടോ ലീക്കുണ്ടോയെന്ന് ശ്രദ്ധിക്കുക പിന്നെ തുറസ്സായ വായുസഞ്ചാരം ഉള്ള സ്ഥലത്തു ഗ്യാസും കുറ്റി വെക്കുക പിന്നെ ആവശ്യം കഴിഞ്ഞാൽ അപ്പാടെ ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഒരുപാടുനേരം തുറന്നുവെച്ചിട്ട് തീപ്പെട്ടി സിഗരറ്റ് ഒന്നും കത്തിക്കാതിരിക്കുക തീപിടുത്തം ഉണ്ടായാൽ ഉടനെതന്നെ നനഞ്ഞ കട്ടിയുള്ള ചാക്ക് കൊണ്ട് മൂടി വെക്കാൻ ശ്രമിക്കുക കുട്ടികൾ സിലിണ്ടറിന്റെ സിലിണ്ടറിൽ കളിക്കുന്നത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളെന്തൊക്കെ ചെയ്യൽ ആ ആ ആ അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക വേറാരൊക്കെയാ വീട്ടിലുള്ളത് മ് അവർ ഗ്യാസ് ഉപയോഗിക്കലുണ്ടോ

അപ്പോൾ നല്ലവണ്ണം ആ ആ അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക ആ എന്നാൽ ശരി